ഇപ്പം സ്ക്കൂളുകളില് വേണ്ടൊരു കാര്യമെന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് ആ ഇപ്പോൾ ഒരധ്യാപകരും ഒരു സ്ക്കൂളിലും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ ഇത് നമ്മുടെ നാട്ടില് ഗുണങ്ങള് മാത്രമേ ചെയ്യുള്ളൂ ഒരു ഒരു സ്ഥാപനങ്ങളോ ഒരു സ്ക്കൂളില് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാല് പിള്ളേർക്ക് എന്താണ് കാര്യങ്ങളെന്നും എങ്ങിനെയാണതു കാര്യങ്ങളെന്നും പഠിക്കാനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആർക്കും ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്താന്ന് പോലും അറിയാത്തതു കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കില് ഇപ്പോൾ ഫുള്ളും റേപ്പും കാര്യങ്ങളുമൊക്കെയാണുള്ളത് നമുക്ക് ഈ ഈ സെക്സ് എഡ്യൂക്കേഷന് ഒരു കാര്യം അറിയാ നമുക്കറിയാം ഈ അടുത്തകാലത്ത് തന്നെ നോർത്ത് ഇന്ത്യയില് ഒരു അ ഒരു സഹോദരൻ ഒരു സഹോദരീനെ കൊന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആർത്തവായിട്ട് അത് എന്താന്നും കൂടെ അറിയാതെ ആ ആ കുട്ടീനെ കൊന്നു കളഞ്ഞു ആ കു കുട്ടീനെ തല്ലിക്കൊന്നുകളഞ്ഞു മോശമായി ചിത്രീകരിച്ച ആ ആ ചെക്ക ആ ബ്രദറിൻ്റെ മനസ്സില് ഈ കുട്ടി എന്തോ ചീത്ത എന്തോ ചെയ്തൂ എന്ന് വിചാരിച്ചിട്ട് ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു അതുപോലെ ആർക്കും ഒന്നും അറിയാതെയും ഇക്കാലഘട്ടത്തിൽ എല്ലാരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം ഏറ്റവും വേണ്ടൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യാണ് എല്ലാ സ്ക്കൂളിലും സെക്സ് എഡ്യൂക്കേഷനെന്ന് പറയുന്നൊരു സാധനം വേണം